നമ്മുടെ ഇവിടെ ഉള്ളത് സ്റ്റേഡിയമാണ് എന്നു വെച്ചാൽ ടറഫ് ടറഫാണ് നമുക്ക് ഇവിടെ ഉള്ളത് അപ്പം ടറഫെന്ന് വെച്ചാൽ മറ്റെ പുല്ലൊക്കെ ഇട്ട് ഉള്ള ഒരു സ്ഥലമാണ് സ്ക്വയർ പോലെ ഇരിക്കും കാണാൻ അപ്പോഴത്തേക്ക് അവിടെ ആണെങ്കിൽ നമ്മളാണെങ്കിൽ ടൂർണമെൻറ്റ് നടത്താറുണ്ട് ആറ് മാസത്തിലല്ലെങ്കിൽ ഒരു രണ്ട് മാസം മൂന്ന് മാസങ്ങൾക്കിടയിൽ ഏകദേശം ഒരു ടൂർണമെന്റെങ്കിലും അവിടെ നടക്കാറുണ്ട് അപ്പോഴത്തേക്ക് നമ്മൾ ഇങ്ങനെ പോസ്റ്റർ അടിക്കും പോസ്റ്ററടിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഓരോരൊ ടീമുകൾ വരും ഫുട്ബോൾ മാച്ചാണ് സാധാരണ വെക്കുന്നത് ചിലപ്പം ക്രിക്കറ്റും കാണാറുണ്ട് അപ്പോഴത്തേക്ക് വെയ്ക്കും അപ്പോഴത്തേക്ക് ആൾക്കാര് വന്ന് കളിക്കും ക്യാഷ് പ്രൈസ് ഉണ്ടിതിന് ഫസ്റ്റ് പ്രൈസും പിന്നെ സെക്കൻറ്റ് പ്രൈസും അങ്ങനെ രണ്ട് പ്രൈസ് ഉണ്ട് തേഡ് പ്രൈസില്ല അപ്പോഴത്തേക്ക് ഇങ്ങനെ കളിയ്ക്കുക അപ്പോഴത്തേക്ക് ജയിക്കുന്ന ടീമിന് നമ്മള് ടൂർണമെന്റെ പൈസ കൊടുക്കാറുണ്ട് അപ്പം നമ്മളും കളിക്കാറുണ്ട് ടൂർണമൻറ്റിന് അതുപോലതന്നെ ടൂർണ്ണമെൻറ്റ് കളിക്കുമ്പോൾ കൂടുതലാൾക്കാര് അവിടെ കാണാനും വരുന്നു കുറെ ആൾക്കാര് വരും കാണാൻ പിന്നെ നമുക്ക് നമ്മുടെ സ്റ്റേഷൻ പരിധിയിലാണെങ്കിൽ എന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിൽ നിന്ന് നമ്മളെ എസ് ഐ ഒക്കെ വരും എസ് ഐ വരും എസൈയാണ് നമ്മുടെ ക്യാഷ് പ്രൈസ് കൊടുക്കുന്നത് അങ്ങനെ ഓരോന്നൊക്കെ ഉണ്ട് പരിപാടി ഒക്കെ ഉണ്ട്